ഗെയിമ് ഒരുപാട് തരം ഗെയിമുകള് കളിച്ചിട്ടുണ്ട് അതിലിപ്പോൾ എല്ലാ ഗെയിമ്സും ഒരേപോലെ തന്നെയാണ് അതിലിപ്പോൾ ബബ്ബിൽ ഷൂട്ടറുണ്ട് പിന്നെ കാൻഡി ക്രഷ് സാഗ അങ്ങനത്തെ ഒരുപാട് ഗെയിമുകളുണ്ട് പാമ്പും കോണിയും എല്ലാം ഗെയിമും ഇപ്പം ആദ്യ കാലത്തൊക്കെയാണേൽ പാമ്പും കോണിയൊക്കെ നമ്മള് വരച്ചിട്ടൊക്കെ ഉണ്ടാക്കലായിരുന്നു അക്കു കളിക്കുക ഇതൊക്കെയായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഫോണിൽ തന്നെ ഒരുപാട് ഗെയിമ്സുകളുണ്ട് അതില് എനിക്ക് കാൻഡി ക്രഷൊക്കെ കളിക്കാനിഷ്ടാണ് പിന്നെ ഫ്രൂട്സ് കട്ടിങ്ങുണ്ട് ഫ്രൂട്സ് കട്ടിങ്ങൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈവെച്ചു കൊടുത്താൽ തന്നെ ഫ്രൂട്സ്കള് കട്ടെയ്യും അതിൻ്റെ ഇടയിൽ കൂടെയൊരു ബോംബ് വരും ആ ബോംബ് ടച്ച് ചെയ്യാൻ പാടില്ല ബോംബ് ടച്ച് ചെയ്താൽ കളി ഓവറാകും ഫ്രൂട്സ് മാത്രം കട്ട് ചെയ്യണമെങ്കിൽ നമ്മള് ജയിക്കും അങ്ങത്തെയൊക്കെ ഒരുപാട് ഗെയിമുകളുണ്ട് അതില് ഗെയിമുകളില്ലാത്ത എല്ലാം കളിക്കാനിഷ്ടമുള്ളതാരാ ആ കളിക്കാനിഷ്ടമാണ് ഗെയിമു കളിക്കാനിഷ്ടമില്ലാത്ത ആരാ ഉള്ളത് ഏത് ഫ്രീ ടൈമു കിട്ടിയാലും നമ്മളാദ്യം റ്റിക്റ്റോക്കിനും മ്യൂസിക്കോ റ്റിക്റ്റോക്കൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കും നമ്മള് ചില ആൾക്കാരുണ്ടാകും കുറച്ച് സമയം കിട്ടിയ ഒഴിവു സമയം കിട്ടിയാൽ നമ്മള് വേഗം ഫോണെടുത്ത് ഗെയിമ്സ് കളിക്കാനാണ് നോക്കാറ്